എൻ്റെ പ്രദേശത്ത് വെറ്റിനറി ഡോക്റ്റേഴ്സ് ഉണ്ട് രണ്ട് മൂന്ന് ആളുകളുണ്ട് പിന്നെ അവർ മൃഗങ്ങളെ ആരോഗ്യത്തോടെ നിലനിർത്താൻ അവർ ശുപാർശ ചെയ്യുന്ന പൊതുവായ കാര്യങ്ങളെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലിപ്പോൾ പൂച്ചയാണുള്ളത് ആ പൂച്ചയെ വൃത്തിയായി സൂക്ഷിക്കുക ഒന്നാമത്തെ കാര്യമായിട്ട് അവർ പറയുന്നത് വൃത്തിയായി സൂക്ഷിക്കുക പൂച്ചകളെ വെച്ച് ഞങ്ങൾക്ക് ഒരിക്കലും അവരെ പുറത്ത് പോവാതിരിക്കാൻ ഒരിക്കലും നമുക്ക് എന്താണ് പറയുക തടഞ്ഞ് നിർത്താൻ ആവില്ല അവരെന്തായായലും പുറത്ത് പോവും മറ്റു പൂച്ചകളുമായിട്ട് ഇടപെടും അപ്പോൾ വന്ന് കഴിഞ്ഞാൽ അവർ എങ്ങനെയെങ്കിലും കുളിപ്പിക്കാനോ ചെവിയിലേക്ക് വെള്ളം തട്ടാതെ കുളിപ്പിക്കാനോ പിന്നെ അവരെ വൃത്തിയാക്കാനൊക്കെയുള്ള എങ്ങനെയെങ്കിലുമൊക്കെ വൃത്തിയാക്കാൻ ആൾ ശ്രമിക്കുക എന്നാണ് ഒന്നാമത് അവർ പറഞ്ഞിട്ടുള്ളത് രണ്ടാമതെന്ന് വെച്ചാൽ അവർ ആവശ്യമായ ഭക്ഷണങ്ങൾ മാത്രം കൊടുക്കുക വലിച്ചു വാരി ഭക്ഷണ സാധനങ്ങൾ തിന്നാൻ കൊടുക്കുന്നത് അവർക്ക് ശരീരത്തിന് അത് വളരെ മോശമാണെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ വെച്ചാൽ കൂടുതൽ മറ്റുള്ള പുറത്തുള്ള മൃഗങ്ങ മൃഗങ്ങളുമായിട്ട് എന്താണ് അവർ പോവുന്നത് ശ്രദ്ധിക്കുക അത് കൂടുതൽ പോവാണെങ്കിൽ അത് ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും രോഗം ഉണ്ടെങ്കിൽ അത് നമ്മുടെ പൂച്ചകളിലേക്ക് പകരാനും വിഷം ഉണ്ടാവാൻ സാധ്യ പിന്നെ അവർക്ക് സൂചി വയ്ക്കുന്ന സമയം ആവുമ്പം ഈ വിഷം മാറ്റാനുള്ള നഖം കൊണ്ട് മാന്തിയാലൊക്കെ നമുക്കെന്തെങ്കിലും വരുവല്ലൊ അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയുള്ള സൂചി വയ്ക്കാൻ വേണ്ടിയിട്ട് കൃത്യമായി കൊണ്ടുപോവുക എന്നും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആരോഗ്യമായി നിലനിർത്താനുള്ള കുറച്ച് കാര്യങ്ങൾ അവർ ശുപാർശ ചെയ്തിട്ടുണ്ട് ഞാന് അവസാനായിട്ടും മൃഗങ്ങളെ പരിശോധിക്കാൻ കൊണ്ടുപോയത് രണ്ട് മൂന്ന് മാസം മുമ്പാണ് പിന്നെ ഞങ്ങളൊരു മാസം ഒരു മൂവായിരം അത്രയേ ഉപയോഗിക്കാറുള്ളൂ പിന്നെ ഭക്ഷണത്തിൻ്റെ അത് അത്ര ആവശ്യം വരാറില്ല ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ അവർക്കും ഞങ്ങൾ മേടിക്കാറാണ് പതിവ്